കൃഷികൾ എപ്പോഴും കാലാവസ്ഥയെ ആശ്രയിച്ച് നടക്കുന്ന ഒരു ഒരു കാര്യമാണ് കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ കൃഷി ചെയ്തിട്ട് കാര്യമില്ല കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നു ഏതെങ്കിലും കാരണവശാൽ കാലാവസ്ഥ മോശമായി നമ്മുടെ കൃഷി നഷ്ടപ്പെട്ടാൽ അതിന് ഗവൺമെൻ്റ് ഇൻഷുറൻസ് ഏർപ്പെടുത്തണം എല്ലാ വിളകൾക്കും കാര്യക്ഷമമായ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തിയാൽ

ജനങ്ങൾക്ക് അടുത്ത് ചെയ്യാൻ തക്കതുപോലെയുള്ള ഇൻഷുറൻസ് പദ്ധതികൾ മുഖാന്തരം വിളകൾ നശിച്ചാൽ അതിനുള്ള നഷ്ടപരിഹാരം ലഭിക്കുവാൻ തക്കവണ്ണമുള്ള സംവിധാനം ഗവൺമെൻ്റ് ഏർപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം